ഞാൻ ഓൺ ലൈനിൽ നിന്ന് ഒരു കുർത്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് സാധനം വന്നത് പക്ഷെ അതിൽ ഡെലിവറി ടു ഡേയ്സിനുള്ളിൽ നടക്കുമെന്നാണ് അതിലുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡെലിവറി വന്നത് അന്ന് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ബ്ലൂ കളർ കുർത്തയാണ് ഓർഡർ ചെയ്തത് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓഡർ ചെയ്തതാണ് പക്ഷെ എനിക്ക് അത് കിട്ടുമ്പോൾ ഗ്രീൻ കളർ ആയിരുന്നു പിന്നെ അതിൻ്റെ തുണി ഭയങ്കര മോശമായിരുന്നു ഞാൻ പ്ലെയിനാ ഉദ്ദേശിച്ചേ പക്ഷെ അതില് നല്ല സ്റ്റോൺ വർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ചെറുതായിട്ട് ഇങ്ങനെ കീറിയ പോലെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ഒരു ഫങ്ക്ഷന് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു എവിടെ നിന്ന് എടുത്ത തുണിയാണ് ഭയങ്കര മോശമായിട്ടുണ്ടല്ലോ എന്നുള്ള ഇതായിരുന്നു എല്ലാവരും പറഞ്ഞത്